സ്റ്റാമ്പുകളും നാണയങ്ങളും കളെക്ട് ചെയ്യുന്നതിലൂടെ സംഭരി ശേഖരിക്കുന്നതിലൂടെയും വിദ്യാഭ്യാസത്തിൽ വളരെയേറെ മൂല്യമുള്ള ഒരു പാഠമാണ് എല്ലാവരും പഠിക്കുന്നത് അതിലൂടെ നമ്മൾ നമുക്കും ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ അറിയാനും അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിൽ ഉപയോഗിക്കാനും സാധിക്കുന്ന ഒന്നാണ് മാത്രല്ല നാണയങ്ങൾ ശേഖരിക്കുന്നത് എപ്പോളും പുതുതായി നമ്മൾ ചെയ്യുന്ന കാര്യത്തിനു വേണ്ടി നിക്ഷേപങ്ങൾ ശേഖരിക്കുന്നതിന് തുല്യമാണ്